ഹലോ ഹലോ ധന്വന്തരി മസ്സാജ് സെൻറർ അല്ലേ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിക്കുന്നതേ ഞാൻ നിങ്ങളുടെ ഒത്തിരിയേറെ പരസ്യങ്ങൾ കണ്ടിട്ടാണ് വിളിക്കുന്നത് പിന്നെ എനിക്കാണെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ട് നന്നായിട്ട് എനിക്ക് നിങ്ങളുടെ ആയുർവേദ ട്രീറ്റ്മെൻറ് എടുക്കാനായിട്ട് താല്പര്യമുണ്ട് അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ ഒന്ന് പറഞ്ഞ് തരാമോ പിന്നെ എൻ്റെ മകളുടെ ഡെലിവറി കഴിഞ്ഞിട്ട്

ഏകദേശം ഈ എനിക്കും മകൾക്കും കൂടെ എത്ര രൂപയാവും എന്നൊന്ന് പറയാമോ

ആ ഓക്കെ അപ്പോൾ അവിടെ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എങ്കിൽ നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡേറ്റിൽ ഒന്ന് ഇത് ചെയ്യാമോ അടുത്ത ആഴ്ച്ചയിലേക്ക് മതി ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഒരു ഇരുപത്തഞ്ചാം തീയതിയിലേക്ക് കുഴപ്പമില്ല ഓക്കെ ഓക്കെ മാം എൻ എൻ്റെ പേര് നിഷ മകളുടെ പേര് അജീഷ പിന്നെ പേയ്മെൻറ് പേ എൻ്റെ എൻ വയസ്സ് നാൽപ്പത്തിയാറ് മോൾ മകളുടെ വയസ്സ് ഇരുപത്തിമൂന്ന് ആ അപ്പം പേയ്മെൻറ് ഗൂഗിൾ പേ നമ്പർ അയച്ചു തരാമെങ്കിൽ പേയ്മെൻറ് അഡ്വാൻസ് ചെയ്യാനായി ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു വേറെ കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടെ പ്രത്യേകം ആൾ ആൾ കാണുമായിരിക്കുമല്ലോ അല്ലേ ഓക്കെ ഓക്കെ മാം ഓക്കെ താങ്ക് യു